എൻ്റെ ഉപഭോക്താക്കളൊക്കെ നല്ല കസ്റ്റമേഴ്സാണ് ഞാനൊരു ചെറിയ ബിസിനസ്സാണ് നടത്തുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ അതിനകത്ത് തുണി ഐറ്റംസും ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ നല്ല മെറ്റീരിയലിട്ട് ചെയ്യുന്ന നല്ല ബ്രാൻഡെഡ് തുണി യ തുണി കൊണ്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ന്യായമായ വിലയ്ക്ക് തന്നെയാണ് ഞാനിതൊക്കെ കൊടുക്കുന്നത് നല്ല ഗുണനിലവാരം ഉള്ള സാധനങ്ങൾ ന്യായമായ വിലയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ബിസിനസ്സിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഞാനത് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ ലഭിക്കുന്ന വിലയെ കാട്ടിലും കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് നല്ല മെറ്റ് നല്ല സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിച്ച് കൊടുക്കുന്നത്